ആ ആ അതെ അതെ ആ ആ ആൻറ്റി ഇവിടെ വീട് പണി നടക്കുവാ ആൻറ്റി അറിഞ്ഞില്ലായിരുന്നോ ആ ആ പുതുക്കി പണിയുവാ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അതെ അതെ കാലാവസ്ഥ പ്രതികൂലമാ എങ്കിലും കോൺട്രാക്റ്റേഴ്സിൻ്റെയിൽ കൊടുത്തിരിക്കുവാ ആന്ന് ആന്റി എന്നാലും ഇന്നത്തെ ഇന്നത്തെ കാലാവസ്ഥ വെച്ചും അല്ലാത്ത സാഹചര്യങ്ങളൊക്ക വെച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മൊത്തത്തിൽ അല്ല എന്നാലും ആ ഒരു പരുവത്തിലൊക്കെ ഇങ്ങനെ നടന്ന് പോവുന്നുണ്ട്

ആ ആ ആണ് ആണ് ആണ് ആണ് ആണ് അത് വേണം അതുകൊണ്ടാണ് കാരണം അടുത്ത ആഴ്ച്ചേത്തിൽ സൗകര്യം ഉള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് പക്ഷെ എങ്കിലും ആ പിന്നെ എന്നാലും എല്ലാം ഒക്കെ ഒത്ത് വരണം എല്ലാം വേണം അതും നടക്കണം ഇതും നടക്കണം അങ്ങനെ ഇരിക്കുന്നു ആ ആന്ന് ആന്ന് ആ

ആന്ന് പുരോഗമിച്ചു ആ പണി ഇങ്ങനെ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നു അകത്ത് ഒക്കെ ഇൻറ്റീരിയർ ഒക്കെ ഇച്ചിരി വെച്ചിട്ടുണ്ട് അതൊക്കെയാണിപ്പം ചെയ്യുന്നത് ഇപ്പത്തെ പാനൽ വർക്കും ഒക്കെയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആ ഇപ്പം ആ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ട് പിന്നെ പുറത്താണ് ബുദ്ധിമുട്ട് കാലാവസ്ഥയുടെ അനുകൂലം അനുകൂല കാലാവസ്ഥ അല്ലാത്തതുകൊണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അകത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം കാലാവസ്ഥ വെച്ച് അകത്തതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് പിന്നെ അനുകൂലമാവുമ്പോൾ പുറത്തെ കൂടെ ചെയ്ത് പെട്ടെന്ന് വെഞ്ചരിപ്പ് നടത്തണം അങ്ങനെ വെച്ചാണ് ഉദ്ദേശിരിക്കുന്നു ആ ഫുഡ് ഒക്കെ ആ ഇല്ല കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് രാവിലെത്തെ ആന്ന് ആന്ന്

ആന്ന് ആന്ന് ആന്ന് ആന്ന് കാരണം കാരണം പൈസ കൊടുത്ത് ആന്ന് ആന്ന് കാരണം പൈസ കൊടുത്ത് നമുക്ക് ഒരു ആളെയും വിളിപ്പിക്കാനൊക്കില്ല പക്ഷെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ മതിയെന്ന് പറയുമല്ലോ അതിലൊരു മതിയെന്ന് പറയത്തുള്ളല്ലോ അതുകൊണ്ടൊക്കെ അതുകൂടെ കൊടുക്കാം എന്ന് കരുതി ആ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ആൻറ്റി അല്ല ആൻറ്റി വരണം ഞാൻ വിളിക്കാം കേട്ടോ ഓ ആ ആ ഓ ഓക്കെ അ ഓക്കെ ഓ ഓക്കെ ആൻറ്റി ഓ ആ അതെ അതെ ഓക്കെ ആൻറ്റി എന്നാൽ വെച്ചേക്കാം ഓക്കെ ഓക്കെ പറഞ്ഞേക്കാം